ഞങ്ങളുടെ ഈ പ്രദേശത്ത് നേരത്തേ ഇഷ്ടം പോലെ തയ്യൽക്കാരുണ്ടായിരുന്നു ഞാനും ഒരു തയ്യൽക്കാരി ആയിരുന്നു അന്നേരം ഞാൻ തയ്ച്ചു കൊണ്ടിരുന്നത് ബ്ലൗസ്സ് സ്കേർട്ടേ ഷർട്ട് ഫ്ളൈ നിക്കർ കൊച്ചു പിള്ളേരുടെ ഉടുപ്പുകൾ ഇതെല്ലാം തയ്ച്ചു കൊണ്ടു ഇരുന്നായിരുന്നു ഇഷ്ടം പോലെ ആൾക്കാർ തയ്ക്കാനായിട്ട് കൊണ്ടു വരുമായിരുന്നു അപ്പം ഒരു കുറേ കുറേ വർഷങ്ങൾ ഞാൻ തയ്ക്കുകയും ചെയ്തു അത് കഴിഞ്ഞു ഇപ്പം ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് ഞാൻ തയ്ക്കുന്നില്ല അത്യാവശ്യം മാത്രം നൈറ്റി ചുരിദാറ് ബ്ലൗസ്സ് അങ്ങനത്തെ അത്യാവിശ്യം വീട്ടിലെ ആവിശ്യങ്ങൾക്ക് ഉള്ളത് മാത്രം തയ്ക്കുന്നുള്ളൂ ഇഷ്ടം പോലെ ആൾക്കാർ നേരത്തെ തുണികൊണ്ടു തന്നു തയ്ച്ചുകൊണ്ടിരുന്നതായിരുന്നു അങ്ങനെ ഒത്തിരി വർക്കുകൾ എനിക്കും കിട്ടിയിട്ടുണ്ട് പരമ്പരാഗത വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ എന്നു പറഞ്ഞാൽ നേരത്തേ അമ്മച്ചിമാർ ഉപയോഗിക്കുന്ന ചട്ടയൊക്കെ ഞാൻ തയ്ച്ചു കൊടുത്തു കൊണ്ട് ഇരുന്നായിരുന്നു പിന്നെ പ്രായമുള്ള ചാച്ചൻമാർ ഉപയോഗിക്കുന്ന ജുബ്ബ ഇതെല്ലാം ഞാൻ തയ്ച്ചു കൊടുത്തു കൊണ്ടിരുന്നായിരുന്നു പിന്നെ ഇപ്പം പറഞ്ഞാൽ ശാരീരിക അസ്വസ്ഥത കാരണം ഞാൻ ടൈലറിങ് നിർത്തിയിട്ട് അത്യാവശ്യം സാധനങ്ങൾ മാത്രമേ തയ്ക്കുന്നുളളൂ അങ്ങനെ ഒരുപാട് പിന്നെ തയ്ച്ചു ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ആണെങ്കിൽ എല്ലാം റെഡിമേയ്ഡ് വസ്ത്രത്തിലേക്ക് വന്നപ്പോഴും അങ്ങനെ ഇപ്പോൾ എല്ലാം തയ്യൽക്കാർ ഇപ്പോഴും ഒത്തിരി ഉണ്ട് പക്ഷെ ഇപ്പം കൂടുതലും റെഡിമേയ്ഡ് ഡ്രെസ്സുകളാണ് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഞാനും ചുരിദാറൊക്കെ റെഡിമേയ്ഡ് മേടിച്ചു ഉപയോഗിക്കാറുണ്ട് പിന്നേ ഒത്തിരി പഴയ രീതിയിൽ തയ്ച്ചു കൊണ്ടിരുന്നപ്പം വീട്ടിൽ മിഷ്യൻ ഇട്ടു നമ്മൾ ഓരോ ആൾക്കാരും വന്നു തുണി കൊണ്ടു തന്നു തയ്ച്ചു അവരുടെ അളവ് എടുത്ത് തയ്ച്ചു എല്ലാം കൊടുത്തും അതൊരു സന്തോഷം ആയിട്ടായിരുന്നു നല്ല ഒരു സന്തോഷപ്രദമായ ജീവിതവുമായിരുന്നു പിന്നീട് ഇപ്പം ഇങ്ങനെ ശാരീരിക അസ്വാസ്ഥ്യങ്ങളൊക്കെ വന്നതിൽ പിന്നെ തയ്യൽ അങ്ങ് കുറച്ചു ഒത്തിരി തയ്ക്കുന്നൊന്നുമില്ല അത്യാവശ്യം മാത്രം തയ്ക്കുന്നുള്ളു പിന്നെ ഒത്തിരി ഫാഷനിലൊക്കെ തയ്ക്കാൻ ഇപ്പം ബുദ്ധിമുട്ട് ഉണ്ട് നേരത്തെയൊക്കെ തയ്ച്ചു കൊണ്ടിരുന്നതായിരുന്നു